സ്ത്രീകൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ വളരെ വെല്ലുവിളികൾ വരുന്നുണ്ട് കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും ഈക്വൽ ആണ് ആ ഒരു കാര്യം ഇവിടെ ആരും ഈ കാലഘട്ടത്തിൽ ആരും അത്രയ്ക്ക് നോക്കുന്നില്ല കാരണം പെൺകുട്ടികൾക്ക് ഒരു അവകാശവുമില്ല എന്നുള്ള ഒരു രീതിയാണ് പൊതുവേ കണ്ടുവരുന്നത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം ആൺകുട്ടികൾക്ക് ജോലിയുണ്ട് പെൺകുട്ടികൾക്ക് എന്താ ജോലി ആയിക്കൂടാ എന്നുണ്ടോ അത്കൊണ്ട്തന്നെ എനിക്ക് ഞാൻ ഇതിനോട് എതിരാണ് സ്ത്രീകൾക്കും പുരുഷനും ഒരേ അവകാശം തന്നെയാണല്ലോ ഈ ലോകത്തുള്ളത് അത്കൊണ്ട്തന്നെ സ്ത്രീകളും ജോലിയൊക്കെ ചെയ്ത് വിദ്യാഭ്യാസം അഭ്യസിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവസരങ്ങൾ അതിനുള്ള അവസരങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഈ പറയുന്നതിനോടൊന്നും യോജിക്കുന്നില്ല കാരണം സ്ത്രീകൾക്കും അവകാശങ്ങളുണ്ട് പുരുഷന്റെ അത്രെയും തന്നെ അവകാശങ്ങൾ സ്ത്രീകൾക്കും ഉണ്ട് സ്ത്രീകൾക്ക് ഇവിടെ സമൂഹത്തിൽ ഒരു വിലയില്ലാതെ ഒക്കെ ആയിട്ടുണ്ട് സോ അതിനോട് ഞാൻ ഒരി ഒരിക്കലും യോജിക്കുന്നില്ല സ്ത്രീകൾക്കും പുരുഷനും ഒരേ അവകാശങ്ങളാണ് ഈ ലോകത്തുള്ളത്